പുസ്തകങ്ങൾക്ക് പുറമേ ഞാൻ മാസികകളും പത്രങ്ങളും വായിക്കാറുണ്ട് അത്യാവശ്യം എന്നാൽ ബ്ലോഗുകൾ അങ്ങനെ വായിക്കാറൊന്നുമില്ല പിന്നെ മാസികകൾ എന്ന് പറയുമ്പോൾ ആരോഗ്യം അതുപോലെ വനിത ഇവയൊക്കെ വായിക്കുമായിരുന്നു പിന്നെ വീട്ടിൽ വരുന്നതൊന്നുമല്ല പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്നും വാങ്ങുന്നതും അതുപോലെ കോളേജിലൊക്കെ പോകുമ്പോൾ അവിടെ ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും ഇതുപോലുള്ളൊര് ഒരുപാട് മാസികള് അതൊക്കെ എടുത്ത് വായിക്കാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ പത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സാറ് എപ്പോഴും വന്നിട്ട്

വളരെ കുറവാണ് പിന്നെ ഈ ടി വി അതൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ ടി വിയിലൂടെയും നമുക്കിപ്പോൾ പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ഇപ്പോൾ ടി വിൽക്കൂടെയും കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ടുതന്നെ ടി വിയിൽ വാർത്ത വെച്ച് കേൾക്കും അതുപോലെ ആഹ് അങ്ങനെ ഒരുപാട് വായിക്കാറും ഇതൊന്നും ഇല്ല എങ്കിൽപ്പോലും കുറഞ്ഞ രീതിയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇപ്പോൾ ഇപ്പിപ്പോൾ ആദ്യമൊക്കെ പിന്നെയും വായിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ അങ്ങ് വായിക്കാറൊന്നുമില്ല ഇടയ്ക്കൊക്കെ